എൻ്റെ പേര് അർച്ചന ഡോക്ടർ ഇല്ലെ ഡോക്ടർ എനിക്ക് കുറച്ച് നാളായിട്ട് ഒരു അലർജി ഉണ്ടായിരുന്നു കോൾഡ് അപ്പോൾ ഇത് കുറേ കാണിച്ചു നോകീട്ട് കുറയുന്നേ ഇല്ല അപ്പോൾ എനിക്കത് അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അത് എന്താ ചെയ്യണ്ടേന്നും ഡോക്ടർ ഒന്ന് പറഞ്ഞ് അതെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഇത് കാണിച്ചിട്ടുണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തീർത്ത് ഒന്നും മാറീല മരുന്ന് അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് ആയുർവേദ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി പിന്നെ ഇപ്പോൾ ഡോക്ടറെ കണ്ട് വേറെ സ്റ്റാർട്ട് ചെയ്യണം ഓർത്തിട്ടാ അതെ നാളെ ചെയ്യാം ഇത് പിന്നെ ഹോസ്പിറ്റൽ കറക്റ്റ് എവിടെയാണ് ഒന്ന് പറയുമോ ഡോക്ടർ അ അ അതെ അതെ അ നാളെ എത്താം ടൈം പറഞ്ഞാമതി ബുക്ക് ചെയ്യണം അല്ലെ എനിക്ക് രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെ ആ ടൈമില് ഏതേലും ഒരു ടോക്കൺ കിട്ടിയാൽ മതി അ അ ശരി അ അതെ അതെ വയസ്സ് മുപ്പത്തി മൂന്ന് അ ശരി